ഞാനെൻ്റെ വീട്ടിലേക്ക് ഒരു ഫർണിച്ചർ മേടിച്ചതിനെ കുറിച്ചാണ് പറയുന്നത് ഞാൻ ഇങ്ങനെ ഫോണിലാണെങ്കിൽ തന്നെ അടുത്തുള്ള ഒരു വീട്ടിൽ പോയപ്പോൾ അവിടെ ഇങ്ങനെ ഒരു ഫർണിച്ചർ കണ്ടു ഒരു അലമാര അപ്പോൾ അത് ഞമ്മൾ നമ്മുടെ വീട്ടിലും മേടിക്കണം അത് നല്ലൊരു പ്രൊഡക്റ്റ് ആണ് എന്നൊക്കെ കരുതിയിട്ട് അങ്ങനെ മേടിക്കാം എന്ന് വെച്ചു അങ്ങനെ ഞങ്ങൾ ഷോപ്പിലേക്ക് പോയി ഞാനും ഹസ്ബൻഡും അങ്ങനെ ഷോപ്പിൽ പോയി ഷോപ്പിൽ പോയി നമുക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാമായിരുന്നു അങ്ങനെ ഒരു ഇരുപതിനായിരം രൂപയുടെ ഒരു അലമാര ഫർണിച്ചർ മേടിച്ചു മേടിച്ച് അവർ തന്നെ വണ്ടിയിൽ കയറ്റി തരികയൊക്കെ ചെയ്തു അങ്ങനെ ഞങ്ങൾ ആ വണ്ടിയിൽ വന്ന് വീട്ടിൽ വന്ന് ഇറക്കി വീട്ടിൽ വന്ന് ഇറക്കി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കൊണ്ട് വന്ന സമയത്ത് തന്നെ ഒന്ന് താക്കോൽ ഉപയോഗിച്ചിട്ട് ഒന്ന് തിരിച്ചൊന്ന് ഡോറൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്യാൻ ഒക്കെ ഒന്ന് ശ്രമിച്ചതായിരുന്നു ആ സമയത്ത് ഓപ്പൺ ചെയ്ത സമയത്തൊക്കെ നല്ല സ്മൂത്തിങ്ങൊക്കെ ഉണ്ടായിരുന്നു നല്ലൊരു പ്രോഡക്റ്റ് ആയിരുന്നു ഈ അലമാര തന്നെ വീട്ടിലെത്തിയപ്പോൾ വീട്ടുകാർ തന്നെ പറഞ്ഞു നല്ലൊരു പ്രൊഡാ നല്ല അലമാരയാണല്ലോ എവിടെ നിന്നാണ് മേടിച്ചത് എന്നൊക്കെ പറഞ്ഞു അവർ പിന്നെ ഒരു വർഷത്തെ വാറന്റിയൊക്കെ തന്നിരുന്നു എന്നിരുന്നാലും നല്ലൊരു പ്രൊഡക്റ്റ് ആയിരുന്നു അത് തന്നെ